എന്റെ വീടിൻ്റെ അടുത്ത് അതായത് എന്റെ വീടിന്റെ തൊട്ട് മുകളിലായിട്ട് മുകളില് ഒരു ചെരുവിന്റെ നേരെ മുകളിലായിട്ട് എന്താണ് ആരും അങ്ങനെ അറിയാത്ത എന്നാല് വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് അതാണ് വാണിയമ്പലം പാറ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേരാണ് വാണിയമ്പലം അപ്പം ഈ പാറയുടെ പേരും വാണിയമ്പലം പാറ എന്നാക്കി അതുപോലെ ഈ ക്ഷേത്രത്തിനെ ഈ സോറി ഈ പാറയുടെ മേലെ തന്നെ ഏകദേശം കറക്റ്റ് നടുവിലായിട്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിന് കുറേ ഐതീഹ്യങ്ങളുണ്ട് എന്താണ് ഈ ഒരു ദേ ത്രിപുര സുന്ദരി ദേവി എന്താണ് ഒരു രാക്ഷസനെ വധിച്ചിട്ട് രാക്ഷസന്റെ വയറിന്റെ മേലെ കേറിയിരിക്കുന്നത് ആയിട്ടാണ് ഈ ഐതീഹ്യം പറയുന്നത് അതുപോലെ അവിടെ എന്താണ് പാറയില് തന്നെ കുറേ കുളങ്ങളൊക്കെ ഉണ്ട് അത് വളരെ അറിയപ്പെടുന്ന കുളമാണ് പിന്നെ ഏത് മതക്കാര്ക്ക് ആയാലും ഏത് ആളുകള്ക്ക് ആയാലും വൈകുന്നെരങ്ങളിലും രാവിലെ ആണെങ്കിലും ഒരു പരിധി വരെ ഇവിടെ എല്ലാവര്ക്കും പ്രവേശിക്കാം സൂര്യാസ്തമയം സൂര്യാസ്തമയം സൂര്യ ഉദയമൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഇതിന്റെ മുകളില് നിന്ന് നമുക്ക് ഇരുന്ന് തന്നെ ആസ്വദിച്ച് കാണാം അതുപോലെ തന്നെയാണ് അവിടെ അമ്പലത്തിൽ ആയാലും എന്തിൽ ആയാലും ആളുകള് തിങ്ങി തിരക്കി വരും ഞായര് ശനി ദിവസങ്ങളിൽ കുറേ ആള്ക്കാർ തോഴാനൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും അങ്ങനെ അറിയപ്പെടാത്ത അറിയാത്ത ഒരു സ്ഥലമാണെങ്കില് പോലും ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത് ആ ഈ വാണിയമ്പലം പാറൻ്റെ തൊട്ട് താഴെ ആയിട്ട് തന്നെ വേറെ ഒരു പാറയും കൂടെ ഉണ്ട് അതിലാണ് ചെറിയ ഒരു പാറയുണ്ട് അതാണ് അത് എന്റെ വീടിന് തൊട്ട് അടുത്താണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും ഞാറാഴ്ച രാവിലെ സമയത്ത് പകല് സമയത്താണെങ്കിലും ഞങ്ങൾ ചിലപ്പോൾ കുട്ടികളോടൊപ്പം പട്ടമൊക്കെ പറപ്പിക്കാന് വേണ്ടിയിട്ട് പാറയുടെ മേലെ പോയിട്ട് പട്ടൊക്കെ പറപ്പിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ചില സമയങ്ങളിൽ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഫുഡ് ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഈ ഫുഡ് പാത്രത്തിലാക്കി കുടിക്കാനുള്ള വെള്ളവും കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്താണ് വീട്ടിൽ അവിടെ പാറയുടെ മേലെ പോയിട്ട് ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ആരും അറിയത്തില്ലെങ്കിലും അങ്ങനെ പ്രശസ്തമല്ലെങ്കിലും ഈ മയിലാടി പാറയാണെങ്കിലും വാണിയമ്പലം പാറയാണ് ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇത് നല്ല ഒരു സുഖം അനുഭൂതി തരുന്ന സ്ഥലമാണ് അങ്ങനെ അങ്ങനെ പ്രശസ്തമല്ല എങ്കില് പോലും വളരെ മനോഹരമായിട്ടുള്ള എല്ലാവര്ക്കും വളരെ സമയം ഇരിക്കാനും ആഘോഷിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഈ രണ്ട് സ്ഥലങ്ങള് അങ്ങനെ പ്രശസ്തമൊന്നുമല്ല